ഞാൻ കഴിഞ്ഞാഴ്ച്ച കമ്പനി പുതിയൊരു കമ്പനീ ജോയിൻ ചെയ്തു അപ്പൊൾ അതിൻ്റെ വർക്കിന് വേണ്ടീട്ട് പുതിയ ഒരു സാംസൻഗിൻ്റെ ലാപ്ടോപ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ലാപ്ടോപ്പാണത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിം ഇഞ്ച് മറ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയുണ്ട് കുഴപ്പമില്ല ഫുൾ ഡിസ്പ്ലെ ആണതില് പിന്നെ കീയ്പാഡ് നന്നായിട്ട് വർക്കെയ്യുന്നുണ്ട് അതിൻ്റെ മൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ് മറ്റേ പുതിയ ഡിസൈനാണ് കീബോഡിനൊക്കെ വലിയ സ്പെയ്സില്ല എങ്കിലും പെട്ടന്ന് നമ്മക്ക് പെട്ടെന്ന് എല്ലാ കീയ്സും നമ്മളെ കണ്ണിൽപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അവര് സെറ്റെയ്തിരിക്കുന്നത് അയില് മറ്റേ സെയ്ഡില് എൽ ഈഡിം ഡിസ്പ്ലേം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ അഥവാ ചാർജ് കമ്മിയാവുമ്പോ അതിൻ്റെ ഡിസ്പ്ലേം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമക്ക് പെട്ടന്നറിയാൻ പറ്റും ചാർജ് കമ്മിയായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പുതിയ ഫീച്ചറ്ന്ന് പറയുമ്പോ കുറച്ചുംകൂടെ സ്പീഡ് ആയിട്ടുണ്ട് നമ്മള് ഞാൻ പഴയത് യൂസേയ്ണത്നെക്കാളും കുറച്ചും കൂടെ സ്പീഡായിട്ടുണ്ട് അത് അതിൻ്റെ മെമ്മറിയും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ലാപ്ടോപ്പെന്നെയാണ് സൈഡൊക്കെ കുറച്ചും കൂടെ ഫിസിക്കലി നോക്കാണെങ്കിലും വീണാലും പെട്ടന്ന് കേട്വരാത്ത രീതിയിലുള്ളൊരു അപ്പിയറൻസാണ് അതിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏകദേശം നല്ലൊരു ലാപ്ടോപ്പായിട്ടാണ് എനിക്ക് അത് തോന്നിയത്